ഞാന് ഒരുപാട് പുസ്തകങ്ങള് വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം ഇറങ്ങിയതില് വെച്ച് ഞാന് വായിച്ച ഒരു പുസ്തകമെന്ന് പറയുന്നത് ആടുജീവിതമാണ് യഥാര്ത്ഥ ജീവിത അനുഭവങ്ങളാണ് ആ ഒരു പുസ്തകത്തില് എഴുതിയിരിക്കുന്നതും ആ ഒരു സിനിമയില് കാണിച്ചിരിക്കുന്നതും നജീബ് എന്നൊരാള് അനുഭവിച്ച ആ ഒരു അവസ്ഥയും വേദനയും വിഷമങ്ങളെല്ലാമാണ് യഥാര്ത്ഥ ജീവിതമാണത് ജീവിച്ച് കാണിച്ച ഒരു ജീവിതമാണ് ആ ഒരു ആടുജീവിതം എന്ന് ആ മൂവിയില് കാണിക്കുന്നത് അത്രയേറെ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം സഹിച്ചു കൊണ്ട് അത്രയും വര്ഷം വീട്ടുകാരെയും എല്ലാം വിട്ടു മരുഭൂമിയില് ഭൂമിയില് താമസിച്ച് അതിനു ശേഷം വീട്ടിലേക്ക് വന്ന ഒരവസ്ഥയാണ് ആ ഒരു ആടുജീവിതം എന്ന പുസ്തകത്തില് നജീബ് തന്റെ ജീവിതാനുഭവം അതുപോലെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരുപുസ്തകമെന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം ഇറങ്ങിയതില് വെച്ച് അല്ല ഇപ്പ ഈ ഒരു കാലഘട്ടത്തില് അങ്ങനെയൊരു പുസ്തകം അല്ലെങ്കിൽ അങ്ങനെയൊരു സിനിമ വേറെങ്ങും സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഇപ്പം ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു പുസ്തകത്തിനൊരു അവാർഡ് നല്ല രീതിക്കൊരു അവാർഡ് തന്നെ ലഭിക്കേണ്ട ഒരു മൂവിയാണത് അത്രയേറെ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് അയാളുടെ ആ ജീവിതാനുഭവം അവരതുപോലെ തന്നെ അഭിനയിച്ചു അത്രയാ അപ്പം തന്നെ എല്ലാവര്ക്കും അവർക്ക് തന്നെ മനസിലയിട്ടുണ്ടാവും ആ ഒരു അവർ അഭിനയിച്ച ആ ഒരു കഷ്ടപ്പാടും അതിലേറെ ജീവിച്ചു കാണിച്ച ഒരവസ്ഥയാണ് അതില് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു പുസ്തകമാണ് ഇപ്പോൾ എ എനിക്കിഷ്ടായതും അതുപോലെ തന്നെ ആ ഒരു യഥാര്ത്ഥ ജീവിത സംഭവങ്ങളും അടിസ്ഥാനമാക്കി വന്ന പുസ്തകമെന്ന് പറയുന്നത്